ഹലോ എൻ്റെ പേര് എവ്ലിൻ ഞാൻ നിങ്ങളുടെ ഓൺലൈൻ ഷോപ്പിങ്ങ് പ്ലാറ്റ്ഫോമിൽനിന്ന് പ്ലേയ് സ്റ്റേഷൻ ഫൈവ് ഓർഡർ ചെയ്തിരുന്നു എൻ്റെ കസ്റ്റമർ ഐ ഡി എവ്ലിൻ മരിയ തോമസ് എന്നാണ് എൻ്റെ ഞാൻ ഓഡറ് ചെയ്ത നമ്പറിൻ്റെ അവസാന അക്കങ്ങൾ ഫൈവ് സിക്സ് നയൻ നയനാണ് എൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് വെളിയനാട് ആണ് ആ അങ്ങോട്ടേക്ക് പ്ലേസ്റ്റേഷൻ ഫൈവ് ഡെലിവറി ചെയ്യാമെന്ന ഉണ്ടായിരുന്ന ഡേറ്റെന്ന് പറയുന്നത് ജൂൺ ഇരുപത്തി ഏഴാണ് അപ്പോൾ എനിക്കതിൻ്റെ ഡെലിവറി സ്റ്റാറ്റസ് അറിയണം എന്നാഗ്രഹമുണ്ട് അതെപ്പോൾ വരുമെന്ന് അറിയാൻ പറ്റിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു അത് വരുമ്പോൾ ഞാനവിടെ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് എനിക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടി കൂടിയാണ് ഞാൻ ഇതാവശ്യപ്പെടുന്നത് അതുകൊണ്ട് എനിക്ക് ഞാൻ ഓഡറ് ചെയ്ത പ്രോഡക്റ്റ് എപ്പം കിട്ടും എവിടെ വരെ ആയി എന്നൊക്കെ അറിയാനായിട്ട് എനിക്ക് ആ അപ്ഡേറ്റുകൾ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ കൂടുതൽ നന്നായിരുന്നു